ഇപ്പോൾ എന്നെ സന്തോഷിപ്പിക്കുന്നത് എന്താണെന്ന് വച്ച് കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ എന്താ പറയുക നടക്കുകയാണെങ്കിൽ അത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം പിന്നേ ഇപ്പോൾ എന്താ പറയുക നമ്മള് നമ്മള് കാരണം മാറ്റൊരാളും കൂടെ സന്തോഷിക്കുന്നു എന്ന് അറിയുമ്പോൾ അത് നമുക്കൊരു സന്തോഷം തന്നെയാണ് ഇപ്പോൾ ഞാൻ കാരണം മറ്റൊരാൾക്ക് എന്തെങ്കിലും ഉപയോഗം ഉണ്ടാവുകയോ അവര് അതുകൊണ്ട് രക്ഷപെടുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതാവുകയാണെങ്കി അത് നമുക്കൊരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് പിന്നേ എന്നെ സംബന്ധി സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എൻ്റെ സന്തോഷം എന്ന് പറയുമ്പോൾ എൻ്റെ കുടുംബത്തിലെ ആയാലും നാട്ടുകാർക്കും എനിക്ക് അറിയാവുന്നവർക്കൊക്കെ നല്ല കാര്യങ്ങളും അതായത് നല്ലത് നടക്കുകയാണെങ്കിൽ അതെനിക്ക് വലിയൊരു സന്തോഷം തന്നെയാണ് പിന്നെ അവർക്ക് ജീവിക്കാനും അന്നന്നത്തെ ആഹാരം വസ്ത്രം വെള്ളം അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ലഭിച്ച് അവര് നല്ല രീതിക്ക് മുൻപോട്ട് പോവുകയാണെങ്കിൽ അതൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് പിന്നേ എനിക്ക് എന്താ പറയുക ഒരു ബെറ്ററായിട്ടുള്ള ഒരു ജോബ് കിട്ടിയാൽ എന്താ പറയുക അത് എനിക്കൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് അത്തരത്തിലൊക്കെയാണ് എനിക്ക് സന്തോഷം സാധാരണ ഉണ്ടാവുക